ഇപ്പോൾ കൂടുതൽ കുട്ടികളും ഇപ്പം പ്ലസ്ടുവൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിലും അവർ തുടർ വിദ്യാഭയസത്തിനൊക്കെ പോകുന്നത് പുറമേ അതായതിപ്പോൾ കർണാടക ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതലായിട്ടും പഠിക്കാനും എല്ലാ കാര്യത്തിനും പോകുന്നത് അതുമല്ലെങ്കിൽ ഇവർ വിദേശത്ത് അങ്ങനെ പോയിട്ട് പഠിക്കാനാണ് ഇവർക്ക് എല്ലാം കൂടുതലായിട്ട് താല്പര്യം അപ്പം കൂടുതലായിട്ടും കുട്ടികൾ നേഴ്സിങ് അങ്ങനത്തെ ഇതിലേക്കാ ഫീൽഡിലേക്കാണ് കൂടുതലായിട്ടും പിള്ളേർ പോകുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ജോലി കിട്ടുന്നൊരു തൊഴിലെന്ന് തൊഴിൽമേഖലാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേഴ്സിങ്ങാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലില്ലാത്ത സ്ഥലങ്ങളില്ല അപ്പം അവിടെ എന്തായാലും നേഴ്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നേഴ്സിങ്ങാണെങ്കിൽ അത്യാവശ്യം പെട്ടന്ന് ജോലീം കിട്ടും പെട്ടന്ന് തന്നെ ജോലി നമുക്ക് എന്തായാലും കിട്ടാൻ ചാൻസുള്ള ഒരിതാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം അപ്പോൾ ഈ അതിൻ്റെ സ്റ്റൈഫൻറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുകേം ചെയ്യും അപ്പം അതാണ് എല്ലാവർക്കും കുറച്ച് കൂടി താല്പര്യമുള്ള ഒരു ഫീൽഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും പിള്ളേർ പോകുന്നൂന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കർണാടക ബാംഗ്ലൂർ അവിടെക്കൊക്കെയാണ് അപ്പം നമ്മുടെ കേരളത്തിൽ പഠിക്കാൻ വലിയ താല്പര്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ക്യാഷ് കൊടുത്തിട്ട് പഠിപ്പിക്കുക പഠിക്കണം പിന്നെ ആവശ്യത്തിന് കോളേജുകൾ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ പുറമേ ആണെങ്കിൽ ബാംഗ്ലൂര് മൈസൂരു ആ ഭാഗത്തൊക്കെയാണെങ്കിൽ ഇഷ്ടംപോലെ കോളേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർക്ക് കൂടുതലായിട്ടും പഠിക്കാൻ താല്പര്യം അവിടെ പോയിട്ടൊക്കെയാണ്